ഗ്രാമീണ പ്രദേശത്തെ പാരമ്പര്യ സുരക്ഷിത പ്രചരിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പരമ്പരാഗതമായി ഒത്തിരിയേറെ കളികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നാട് പുതിയ പുതിയ സംസ്കാരത്തിലേക്ക് പോകുന്നതനുസരിച്ച് ഇത്തരം പല സംഭവങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാ ഭവനങ്ങളിലും ഒത്തിരിയേറെ കുട്ടികൾ ഉണ്ടായിരുന്നു അതുകൊണ്ടു തന്നെ കളിക്കു വേണ്ടി ഒത്തുചേരുന്നതിനുള്ള അംഗസംഖ്യ വളരെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല പരമ്പരാഗത കളികളും നടത്തുന്നതിന് അന്ന് സാധിച്ചിരുന്നു ഇന്നിപ്പോൾ ഒരു സവിശേഷത കാണുന്നത് വീടുകളിൽ കുട്ടികളില്ല ഉള്ളവർ തന്നെ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കോ പ്രാധാന്യം കൊടുത്ത് ആ അങ്ങനെ പ്രദേശത്ത് തന്നെ ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ കൂട്ടുചേരുവാൻ ആളുകളില്ല ഇനി പല കുട്ടികളും ഇപ്പോൾ ഫോഡിൻ്റെയും മറ്റ് മാധ്യമങ്ങളിലെയൊക്കെ പിന്നാലെ പോവുമ്പോൾ അവർക്ക് ഒറ്റക്കിരുന്ന് ഫോണിലൂടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് താല്പര്യം അപ്പോൾ പുറത്ത് വീടിന് പുറത്ത് ഒന്ന് ചേരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി സൃഷ്ടിക്കപ്പെട്ടു വന്നിരുന്ന പല കളികളും ഇന്ന് അന്യം നിന്നുപോയി എന്നു പറയാം ഇപ്പോഴും പിടിച്ച് നിൽക്കുന്ന വളരെ ചുരുക്കം ചില കളികളുണ്ട് പ്രത്യേകിച്ച് അത് ഈ നാടൻ പന്ത് കളി അതും ചില ചില പ്രദേശങ്ങളിലേക്ക് മാത്രമായി ഒതുക്കപ്പെട്ടിരിക്കുന്നു ആളുകൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ന്ന ആസ്വദിക്കുന്നതിനുള്ള സാഹചര്യം വളരെ പരിമിതമാണ് ഏതാനും സ്ഥലങ്ങളിൽ മാത്രം ഇതിങ്ങനെ നടക്കുന്നതായിപ്പം മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ട് അതും എത്ര കാലം തുടരുമെന്ന് പറയാൻ പറ്റില്ല കാരണം പുതിയ പുതിയ ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും ഒക്കെ ബോളും ക്രിക്കറ്റ് ഫുട്ബോൾ നേരത്തെ ഉള്ളതാണ് അതിൽ ഒത്തിരിയേറെ ആളുകൾ പങ്കെടുത്തിരുന്നു ഇപ്പോൾ അങ്ങനെ വൈകുന്നേരങ്ങളിൽ കൂട്ടുകൂടാനും കളിക്കുവാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഇന്ന് വളരെ പരിമിതമാണ് കാരണം ആളുകളുടെ അംഗസംഖ്യ പരിമിതമായത് തന്നെയാണ് പ്രധാന കാരണം ഇന്ന് താല്പര്യമുള്ള മറ്റു പല കാര്യങ്ങളിലേക്കും ആളുകൾ തിരിയുകയാണ് ഇന്ന് ക്രിക്കറ്റ് അമിത പ്രാധാന്യം നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ടു തന്നെ കുട്ടികൾ ഇന്ന് സാധാരണ അസ ചെറിയ തോതിലുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി അങ്ങനെയുള്ള കളികളിൽ ഏർപ്പെടാനാണ് ശ്രമിക്കുന്നത്